വയനാട് ജില്ലയിൽ പ്രധാന സാംസ്കാരിക സാമൂഹിക പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു നാടാണ് വയനാട് കാരണം ഭാഷാപരമായും മതപരമായും ആചാരങ്ങൾ കൊണ്ടും നിരവധിയായ അനുഷ്ഠാനങ്ങൾ നമ്മുക്ക് കാണാൻ കഴിയും പിന്നെ ഈ ഹിന്ദു മതത്തിലാണെങ്കിൽ വയനാട്ടിൽ കാണാൻ എന്താ പറയുക കേരളീയരുടെ ഉത്സവം പോലെ വള്ളിയൂർക്കാവിൽ ഉത്സവം അതുപോലെ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് മുസ്ലിംസ് പെരുന്നാൾ ക്രിസ്ത്യാനികളുടെ പള്ളിക്കുന്നിലുള്ള ലൂർദ് മാതാവിൻ്റെ പെരുന്നാൾ ഇങ്ങനെ നിരവധിയായ ആ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങൾ കാണാൻ കഴിയും നാനാജാതി മതസ്ഥരരും അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടികൾ കാണാൻ വിധവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ആചാരങ്ങൾ കാണാനായി നിരവധിയായ ആളുകൾ ഓരോ ദിവസവും ഓരോ പരിപാടികൾ കാണുന്നതിനായി മതപരമായും ഭാഷാപരമായും കാണുന്നതിനായി ഇവിടെ ആളുകൾ വന്നു ചേരുന്നു സാംസ്കാരിക രംഗത്തും വിദേശികൾക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ആചാരങ്ങളിൽ അവർക്ക് മുൻതൂക്കം നൽകുന്നു അതു കണ്ട് ആസ്വദിക്കാനും അതിൽ പങ്കുചേരാനും ഓരോ വിദേശികൾക്കും സാംസ്കാരികവും പാരമ്പര്യവുമായ രീതിയിൽ അവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു